എനിക്കിഷ്ടപ്പെട്ട പാചകം എന്ന് പറയുന്നത് സദ്യ വെക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ നമ്മുടെ സദ്യ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കറികളും ഇതൊക്കെയുണ്ട് അതുപോലെ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ സദ്യ വെക്കുന്ന സമയത്ത് ഒരു അഞ്ചാറു പേരൊക്കെ ചേർന്നാണ് വെക്കുക അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ കഷ്ണങ്ങൾ അരിയുന്ന സമയത്തൊക്കെ സംസാരിച്ചു ഒക്കെയാണ് വെക്കുന്നത് അപ്പോൾ ആ ഒരു സമയം പോക്കും രസമാണ് ആ ഒരു വൈബ് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ ചെയ്യും അതുകൊണ്ടൊക്കെ ഈ സദ്യ പ്രത്യേക താൽപര്യമാണ് സദ്യയോട് സദ്യ വെക്കുന്നതിനോട് കഴിക്കുന്ന എനിക്ക് ഈ സദ്യ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മളെ ഇഷ്ടപ്പെട്ട കുറച്ചു കറികൾ ഒക്കെയുണ്ട് മസാലക്കറി ഓലൻ അവിയൽ അങ്ങനെയുള്ള കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോരു കൊണ്ടുള്ള കറികൾ എല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് മോര് പ്രത്യേക ഇഷ്ടപ്പെട്ട ഒരു കറി ഇതാണ് മോര് അപ്പോൾ ഈ മോര് കൊണ്ടുള്ള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവെക്കാൻ ഇപ്പോൾ അവിയൽ മോരുകറി അങ്ങനെ ഒരുപാട് മോര് കൊണ്ടുള്ള കറികൾ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് പിന്നെ സദ്യ വെക്കുമ്പോൾ നമ്മൾ പായസം വെക്കും പായസം എനിക്കിഷ്ടപ്പെട്ട പായസം എന്ന് പറയുന്നത് ചെറുപയർ പായസം അതുപോലെ പാലട പ്രഥമനും ആണ് ഇത് ഉണ്ടാക്കാൻ നല്ല രസമാണ് അത് ഭയങ്കര താൽപര്യമാണ് നമ്മളിപ്പോൾ ഈ ഏലക്കായയും അതിൻറെ മണം ഒക്കെ നല്ല രസമാണ് അതുപോലെ ഈ മസാലക്കറീലൊക്കെയുള്ള ഗ്രാമ്പൂ കറുവപ്പട്ട ഒക്കെ ഇടും അതൊക്കെ ഭയങ്കര നല്ല മണമാണ് ഈ സോയ ബീൻസും ഗ്രീൻപീസ് ഒക്കെ ഇട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മസാലക്കറി ഒക്കെയാണ് ഭയങ്കര നല്ല രസമാണ് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അത് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നും സദ്യയോടാണ് എനിക്ക് താൽപര്യം തോന്നിയിട്ടുള്ളത് സദ്യ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഴിക്കാൻ